ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുൻപത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് വികസിത രാജ്യങ്ങൾക്കൊപ്പം ഓടിയെത്താൻ ഇന്ത്യക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് ഓരോ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും ഇന്ത്യ വൻരീതിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ഒരു കാലഘട്ടമാണിപ്പോൾ അതിലേറെ സഹായിക്കുന്നത് പലതരത്തിലുള്ള വ്യവസായങ്ങളാണ് പലതരത്തിലുള്ള വ്യവസായങ്ങൾ വഴി ഇന്ത്യ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടോണ്ടിരിക്കയാണ് മറ്റ് വികസിത രാജ്യങ്ങളേക്കാൾ ഉയർന്ന് അതിനൊപ്പം ഒപ്പാണെങ്കിലും ഉയർന്നു പോകാനാണ് ഇന്ത്യക്ക് ഇപ്പോൾ കഴിയും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻറ്റർനെറ്റ് ഇൻറ്റർനെറ്റ് വഴി ഓരോ സേവനങ്ങൾ വന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചക്ക് മാത്രമല്ല ഓരോ ബാങ്കിങ് പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ഇടപെടലുകൾ കൂടുതൽ സുതാര്യമാവുകയും കസ്റ്റമേഴ്സിന് അത് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട് ഓൺലൈൻ പ്രവർത്തനങ്ങൾ വഴി ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോയി ബുദ്ധിമുട്ടാനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടാകുന്നില്ല അതിനെയാണ് നല്ല രീതിക്കുള്ള സാമ്പത്തിക സ്ഥിതിയിപ്പമുണ്ട് ഓൺലൈൻ ആയിട്ടാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ പോലും അല്ലെങ്കിൽ പുറത്തേക്ക് പോവാ പോയി ഒരു സംഭവം ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എല്ലാം ഓൺലൈൻ ആയി തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ ഇന്ത്യ മുൻ അവസ്ഥയെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യ നല്ലരീതിയിൽ ഇപ്പോൾ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടിട്ടാണെങ്കിലും വളരെ നല്ലരീതിയിലാണ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയും മറ്റ് മറ്റ് ഓരോ സംസ്ഥാനങ്ങളെ അപക്ഷിച്ച് ഇന്ത്യയും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കയാണ്